ഹലോ മ്മ് ഒഓ ഞാനൊരു കസ്റ്റമർ ആണേ സ്ഥിരം കസ്റ്റമർ ആണേ അവിടുത്തെ എനിക്ക് ഇവിടെ ഒരു ഒരു ഫങ്ഷൻ ഉണ്ട് അപ്പോൾ എനിക്കൊരു കുറച്ച് ബിരിയാണി ഓര്ഡര് ചെയ്യാനാണേ ഒരു അമ്പത് ഒരു അമ്പതോളം പേര്ക്ക് വേണ്ടിയിട്ടാണ് ആ അത് അവിടെ ഏതൊക്കെയുണ്ട് എന്തൊക്കെയുണ്ടെന്ന് പറയാന് ഒക്കുമോ അ അ ഓക്കെ ഓക്കെ എനിക്ക് ആ എനിക്ക് പ്രിഫര് ചെയ്യുന്നത് ഞാൻ മട്ടണ് ബിരിയാണിയാണേ വിചാരിച്ച് വച്ചിരിക്കുന്നത് അപ്പം അതിനെക്കുറിച്ച് അതിന്റെ റേറ്റും കാര്യങ്ങളുമൊക്കെ ഒന്ന് പറയാമോ മ്മ് അ ആ അപ്പോൾ മൊത്തത്തി അതെ അതെ കറി സെപ്പറേറ്റ് അല്ല മട്ടണ് ബിരിയാണി ആയിട്ടുതന്നെ ആ ആ ആ ആ ഞാന് റേറ്റ് നോക്കിയിട്ട് വേണം റേറ്റ് കൂടെ ഒന്ന് ആ ആ ആ ആ പക്ഷെ അവിടുത്തെ ബിരിയാണ് എനിക്കേറ്റവും താല്പര്യം അപ്പോൾ ബിരിയാണി മതിയേ ആ അപ്പഴ് ആ അപ്പം എനിക്ക് നാളെ നാളെയാണ് ആവശ്യം അപ്പം ഒരു മൂന്ന് ആ മൂന്നു മണിയൊക്കെ ആകുമ്പഴെത്തേക്ക് എത്തിക്കാമോ ഫങ്ഷന് നാലുമണിക്ക് തുടങ്ങും അപ്പോൾ മൂന്നു മണിയൊക്കെയാകുമ്പം ഉം ആ ആ മൊബൈല് സര്വ്വീസ് ഉണ്ടല്ലോ ആ പിന്നൊരു മൊബൈല് സര്വ്വീസിങ്ങ് ഉണ്ടല്ലോ കൊണ്ടുവരുമല്ലോ ആ ആ അപ്പഴ് കൊണ്ടെത്തിച്ചാൽ വലിയ ഉപകാരം അ അപ്പഴ് നാളെ മ്മ് ആന്നല്ലേ ആ അപ്പഴ് നമുക്ക് വിലയിൽ അഡ്ജസ്റ്റമെന്റ് വല്ലതും ഉണ്ടോ ആ ഓക്കെ ഓക്കെ ആ മ്മ് സ്പെഷ്യൽ ആയിട്ട് വേണ്ട വേണ്ട ഇത് മാത്രമേ ഉദ്ദേശിക്കുന്നുള്ളൂ വേറെ സ്പെഷ്യൽ ഒന്നും വേണ്ട മട്ടണ് ബിരിയാണി മാത്രം മ് ആ ഓക്കെ എന്നാൽ ഓക്കെ താങ്ക്സ് എന്നാൽ